ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്നു പറയുന്നന്നത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് മാത്സ് സയൻസ് സോഷ്യൽ സയൻസ് പി ടി വർക്ക് എക്സ്പീരിയൻസ് തുടങ്ങിയ നിരവധി വിഷയങ്ങളാണ് അധ്യാപകർ നല്ലവരും വിദ്യാ സമ്പന്നരുമാണ് നല്ലവരായ അധ്യാപകരുണ്ടങ്കിൽ മാത്രമേ നല്ലൊരു സാമൂഹത്തെയും നല്ലൊരു കുട്ടികളെയും വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ അതുപോലെത്തന്നെ ആ അറിവ് നിർമിക്കുന്നവനും നിരന്തരം പുതുക്കുന്നവനുമാണ് അധ്യാപകർ ഏതൊരു വിഷയത്തെക്കുറിച്ചും നല്ല രീതിയിലുള്ള അറിവ് എല്ലാ അധ്യാപകർക്കുമുണ്ട്